എൻ്റെ വീട്ടിൽ ഇലക്ട്രോണിക് ഉപകാരങ്ങളായ വാഷിങ്ങ് മഷീൻ ടി വി ലാപ് ടോപ് ഫാൻ ബൾബ് ടോർച്ച് അങ്ങനത്തെ കുറേ ഉപകരണങ്ങളുണ്ട് ഫാനും ലൈറ്റും ഒക്കെ നല്ല പോലത്തെ തന്നെ നമ്മൾ താമസിക്കുന്നതു കൊണ്ട് വെച്ചതാണ് ആവശ്യ വാഷിങ്ങ് മഷീനും അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ ഇപ്പടുത്ത് രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുള്ളു ഉണ്ട് കേട്ടോ അപ്പോൾ അതു പോലെ തന്നെ പിന്നെ ടി വി ആദികാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പം പിന്നെ എല്ലാവരുടെ കൈയിലും ഫോണായതു കൊണ്ട് ടി വീൻ്റെ ഉപയോഗം കുറഞ്ഞു ടി വിയില്ല